ഹലോ ഇത് മഹീന്ദ്രേൻ്റെ ഷോറൂം അല്ലേ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണോ സംസാരിക്കുന്നത് ആ അപ്പോൾ അവിടുത്തെ ബൊലോറെയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നേ പാസഞ്ചർ വെഹിക്കിളാണ് നോക്കുന്നത് ആ അതെ അതെ ആ പതിനാല് പോയിൻറ്റ് സംതിംഗ് അല്ലേ ആ ഓ അത് വരുമല്ലേ ഓക്കെ ഇതൊക്കെ എക്സ് ഫോർ റൂം പ്രൈസ് ആണോ അതോ ഓൺറോഡ് പ്രൈസ് ആണോ ഓൺറോഡ് പ്രൈസ് അല്ലേ അപ്പോൾ ഈ അഞ്ച് വർഷത്തേക്ക് ഇൻഷുറ് കാര്യങ്ങളൊക്കെ അതിന് അകത്ത് ഉൾപ്പെടുമോ പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് അഞ്ച് വർഷത്തേക്ക് ആണ് ഇൻഷുറും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ ഓ പുതുക്കണം ആ അതായത് ഫസ്റ്റ് ഒരു വർഷത്തേക്ക് മാത്രം ആണ് ബംബർ ടു ബംബർ അങ്ങനെ ആണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ ഇങ്ങനെ ആണ് റേറ്റ് വരുന്നത് അതിന് ഇപ്പോൾ ഫുൾ ഓപ്ഷൻ നമ്മൾ എടുക്കും ഇപ്പോൾ ഒരു പതിനാല് പോയിൻറ്റ് ചില്ലറേൻ്റെ എടുക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ കളർ ഏതൊക്കെയാണ് ഉള്ളത്

കളറും കൂടെ വരുന്നുണ്ട് അത് ഫുൾ ഓപ്ഷനിൽ വരുന്നത് ആയിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് മ് ആ ആ ഉണ്ടല്ലേ അത് ഫുൾ ഓപ്ഷനിൽ വരുന്നത് അല്ലേ ആ ഇ എം ഐയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ ഓ ഇവിടെനിന്ന് അത് എച്ച് ഡി എഫ് സി ബാങ്കോ അതോ വേറെ ഏതെങ്കിലും ബാങ്ക് ആണോ ആ

ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നോക്കി നോക്കാം എന്തായാലും ഇപ്പോൾ നമ്മൾ ആദ്യം എത്ര എമൗണ്ട് അടയ്ക്കണം ആ ഉണ്ട് കിട്ടുമല്ലേ മതി ആവും അല്ലേ ബുക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് വേണോ തന്നാൽ മതി അല്ലേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എത്ര ദിവസം കൊണ്ടാണ് വണ്ടി കിട്ടുക ടൈം വരുന്നത് അല്ലേ അല്ല ഇവിടെ അടുത്ത് ഒരു ആ ഓക്കെ അല്ല ഇവിടെ ഒരു അടുത്ത് ഒരു വണ്ടി ഒരാൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച്ച കൊണ്ട് വണ്ടി കിട്ടി അതാണ് ഞാൻ ചോദിച്ചത്

ആ എനിക്ക് കുറച്ച് കൂടെ താൽപ്പര്യം ഉള്ളത് വൈറ്റാണ് അപ്പോൾ വൈറ്റ് കുറച്ച് കൂടെ നല്ലത് ആയിരിക്കുമെന്ന് തോന്നുന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ ഞാൻ ഷോറൂമിലേക്ക് വരട്ടെ എന്നാൽ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ